കോഴി വളർത്തൽ താറാവ് വളർത്തൽ അല്ലാതെ പിന്നെ ചെയ്യുന്നത് തയ്യലിൻ്റെ ബിസ്നസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ കോഴി മതിയെന്ന് തോന്നുന്നില്ല കാര്യം എന്തെന്ന് വച്ചാൽ പക്ഷിപ്പനി അങ്ങനെയുള്ള ധാരാളം കേസുകൾ വരുന്നത് കൊണ്ട് കോഴി ബിസ്നസ്സ് ചെയ്യുന്നവർക്കും താറാവ് ബിസ്നസ്സ് ചെയ്യുന്നവർക്കും ഇപ്പോൾ കുട്ടനാടൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്ന ഒരു സമയം ആണ് ഇത് അതുകൊണ്ട് കോഴി വളർത്തൽ ചെയ്താലും താറാവ് വളർത്തൽ ചെയ്താലും ഒരു മെച്ചം ഉണ്ടാകുന്നില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ആൾക്കാർ മറ്റുള്ളവർ എന്തെങ്കിലും വേറെ നല്ല ബിസിനസ്സ് ചെയ്യാനായിട്ട് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇങ്ങനെയുള്ള പക്ഷിപ്പനികളും അങ്ങനെയുള്ള ഇതോ കേസുകളൊന്നും ഇല്ലെങ്കിൽ കോഴി വളർത്തലും താറാവ് വളർത്തലും ലാഭകരമായ ഒരു ബിസ്നസ്സ് ആണ് കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വച്ചാൽ